ടി വി പ്രോഗ്രാമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് ഒന്നും പറയാനില്ല ടി വി പ്രോഗ്രാമുകളിൽ ഒഴിവ് സമയങ്ങളിലാണ് ടി വി വെച്ചാൽ തന്നെ ഏഴുമണി തൊട്ടിട്ട് പത്തു മണിവരെ എല്ലാ എല്ലാ ഈ കൂടുതൽ താല്പര്യങ്ങളുള്ള ഓരോ പരിപാടികൾ തന്നെയാണ് ഉള്ളത് ഓരോ ചാനൽ മാറ്റി മാറ്റി കണ്ട് കൊണ്ടേയിരിക്കും അത് സീരിയലെന്ന് പറഞ്ഞാൽ സീരിയലിൽ ഓരോ കഥകളെല്ലാം നമ്മളെ പിടിച്ചിരുത്തും പിറ്റേ ദിവസം അത് കണ്ടില്ലെങ്കിൽ ഉള്ള വിഷമങ്ങൾ നമ്മുടെ അമ്മൂമ്മമാർക്കാണെങ്കിലും നമ്മൾക്കാണെങ്കിലും അതിൻ്റെ വിഷമം ഒന്ന് വേറെ തന്നെയാണ് സീരിയൽ കാണാണ്ട് ശരിയാവില്ല എന്ന് തന്നെ പറയാം പിന്നെ റിയാലിറ്റി ഷോകൾ അവരുടെ ഓരോ പരിപാടികളെല്ലാം കാണാൻ ഭയങ്കര രസമാണ് പിന്നെയുള്ളതാണ് തമാശ പരിപാടികൾ നമ്മളെ നമ്മൾ കുറച്ച് സങ്കടത്തിലാണെങ്കിലും ആ തമാശ പരിപാടികളെല്ലാം കണ്ടാൽ തന്നെ നമുക്ക് നമ്മൾ നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളെല്ലാം മറന്ന് അതിൽ ലയിച്ച് പിന്നെ നല്ല സന്തോഷവാന്മാരായിട്ട് തന്നെ ഇരിക്കും അതുകൊണ്ട് ടി വി ടി വി പ്പോ ടി വി പരിപാടിയിൽ ഒരു പ്രോഗ്രാമുകളും മോശം ഉള്ളതല്ല എല്ലാം നല്ലത് തന്നെയാണ് എന്ന് തന്നെ പറയാം ഏറ്റവും ഏറ്റവും പ്രധാനമായിട്ട് സീരിയലുകൾക്കാണെന്ന് തന്നെ പറയാം സീരിയൽ സീരിയലാണ് നമ്മുടെ മൊത്തത്തിൽ പിടിച്ച് ഇരുത്തുന്ന ഒരു ടി വിയിലെ ഏറ്റവും വലിയ പോഗ്രാമ്